ഹലോ ഹലോ ആ ഓക്കെ ഓ അതെ അല്ലേ ഓക്കെ ഓക്കെ അപ്പം ഏത് കോഴ്സ് എടുക്കാനാണ് താൽപ്പര്യം ഇപ്പോൾ ഏതാണ് ഏത് ബാക്ക്ഗ്രൗണ്ടായിരുന്നു എന്തോ ഹലോ ആ പറയൂ പറയൂ ഏത് കോഴ്സ് എടുക്കാനായിരുന്നു ആ ഹലോ ആ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് കേൾക്കാം കേൾക്കാം ഓക്കെ അപ്പോൾ സയൻസ് ആയിരുന്നല്ലോ ബാക്ക്ഗ്രൗണ്ട്

ഹലോ കേൾക്കത്തില്ലേ ഹലോ ആ സയൻസ് അല്ലേ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ആ ഓക്കെ അപ്പം നമ്മൾക്ക് ഇതിൻ്റെ കാര്യം ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചിരുന്നോ എവിടെ സ്ഥലം എവിടെയാണ് പ്ലേസ് എവിടെയാണ്

ഓ അതെ ഓക്കെ ഓക്കെ ഇതിപ്പോൾ നമ്മൾക്കാണെങ്കിൽ കുറച്ച് കോളേജസ് ഉണ്ട് ഞാൻ ഇപ്പോൾ കോളേജിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഏതൊക്കെയാണെന്നുള്ളത് ഇതിപ്പോൾ കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് പിന്നെ ബെസിലിയസ് കോളേജ് ഉണ്ട് മഹാരാജാസ് ഒരു നല്ലൊരു കോളേജാണ് നമുക്ക് അവിടേയക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ ആ ആ മാർത്തോമ കോളേജ് ഉണ്ട് മൂവാറ്റുപുഴ

ആ ആ ഉണ്ട് ഉണ്ട് ആ ഓക്കെ അപ്പം ഇത് ഇതിന് ആണെങ്കിൽ ഒരു കോളേജിൻ്റെ സൈറ്റിൽ കയറിയിട്ട് എന്താ ഒരു ഫോമ് ഉണ്ട് അത് ഒന്ന് ഫില്ല് ചെയ്യുക ആ അപ്പം ഡീറ്റെയിൽസ് നമ്മളുടെ നെയിമ് നമ്മളുടെ പ്ലേസ് പിന്നെ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടാണെന്നുള്ള കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അതിലുണ്ട് അപ്പോൾ നമ്മൾ അത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് ഒരു സെവെന്റി ഫൈവ് പെർസെന്റേജ് ആണ് മാക്സിമം ഇവിടെ ഇന്റിവിജ്വല് മാത്സ് ബയോളജി അതിനൊക്കെ ആണെങ്കിൽ ഫിഫ്റ്റി സെവെന്റി ഫൈവ് തന്നെ വേണം ഇന്റിവിജ്വൽ ആയിട്ട് ആ ആ ആ ഓക്കെ ആണ് നമുക്ക് ആ അപ്പം ഈ ഒരു ഫോമ് ഫില്ല് ചെയ്യുക എന്നിട്ട് നമുക്ക് കോളേജിലേക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് വരിക നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾ നമ്മളുടെ പ്ലസ്ടുവിലെ സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉണ്ടല്ലോ കിട്ടിയിട്ടുണ്ടല്ലോ ആ അപ്പോൾ ഓക്കെ അതൊക്കെ ആയിട്ട് വരിക നമുക്ക് കോളേജിൽ നിന്ന് ഫോമ് ഉണ്ട് അത് ഫില്ല് ചെയ്ത് ഓക്കെ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കാവുന്നതാണ് പിന്നെ ഇതിന് സ്കോളർഷിപ്പ് ഉണ്ട് കേട്ടോ ആ അതെ സ്കോളർഷിപ്പ് ആ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പം നമുക്ക് ഇത്ര നമുക്ക് ഇപ്പം ഫീസ് അടയ്ക്കേണ്ടത് നമുക്ക് അത് കുറച്ചായിരിക്കും എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും നമുക്ക് എമൗണ്ട് ഓഫ് ഫീസ് അടച്ചാൽ മതി പിന്നെ നമുക്ക് അത് ജസ്റ്റ് എക്സാം ഫീ അങ്ങനെ എന്തെങ്കിലും മാത്രമേ അടക്കേണ്ടി വരൂള്ളൂ അല്ലാണ്ട് നമുക്ക് ബാക്കി ഫുള്ള് സ്കോളർഷിപ്പിൽ ആയിരിക്കും വരുന്നത് ആ ആ ഓക്കെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താലും മതി ആ ഓക്കെ താങ്ക് യൂ